പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഒന്ന് പതിനാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്